മരിയ ഫിജി സോ സ്റ്റോർ ആണോ എന്ത് മീനൊക്കെയാണ് ഉള്ളത് അവിടെ കരിമീന് എന്ത് വിലയാണ് ചൂരയോ എങ്കിൽ ക ഒരു ഒരു കിലോ കരിമീൻ കൊടുത്തു വിട്ടേക്കണേ ഇവിടോട്ട് ഒന്നു കൊടുത്തു വിട്ടേക്കുമോ വീട്ടിലോട്ട് ഞങ്ങളുടെ ഇവിടെ ഇന്ന് കൊടുപ്പിനയാണേ അപ്പം ഞാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം പള്ളിയുടെ അവിടെ അടുത്തായിട്ടാണ് അപ്പം അവിടോട്ട് ഒന്നു കൊണ്ടുവരുമോ ആരുടെ കയ്യിലെങ്കിലും കൊടുത്തു വിട്ടേക്കുമോ നല്ലത് കൊടുത്തുവിടണേ എൻ്റെ പേര് റീന നല്ലത് കൊടുത്തുവിട്ടേക്കണേ കേട്ടോ ആ ഇത്തെ ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മൾ മേടിക്കുന്ന സാധനം നമ്മൾ വരുന്നില്ലല്ലോ വല്ലവരുടെ കയ്യിലും അല്ലേ കൊടുത്തുവിടുന്നത് അപ്പം നല്ലത് കൊടുത്തുവിടണേ

ഞാനൊക്കെ ആ ആ വേറെ മീൻ ആ ഇത് പേര് പറഞ്ഞിരുന്നല്ലോ റീന എന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഇറങ്ങി നിന്നേക്കാം പൈസ ആരുടെ കയ്യിലാണ് കൊടുത്തുവിടേണ്ടത് അതിൻ്റെ കൊടുത്തുവിട്ടേക്കാനോ നാനൂറ് രൂപയല്ലേ എന്നെങ്കിൽ ഒരു കിലോ ചാളയും കൂടെ എടുത്തോണേ ആ ശരി എന്നാൽ ശരി എന്നാൽ വേറെ എന്തോ ആ ബീഫ് ബീഫിനെന്നാ വിലയാണ് മുന്നൂറ്റി അൻപത് ആ എന്നെങ്കിൽ ബീഫും കൂടെ ഒരു കിലോ എടുത്തോ ആ ശരി എന്നാൽ